ഹലോ ആ അല്ല സാറേ ഞാൻ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് ആണ് നമ്മുടെ രണ്ട് ദിവസത്തെ സ്റ്റേയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സർവീസും റൂം ക്ലീനിംഗും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സാറേ ആ അത് സാറേ നമ്മുടെ രണ്ട് മൂന്ന് ഓഫീസസ് സർവീസ് ലൈൻ ഓഫ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എല്ലാ റൂമിലൂടെ ഓടി എത്താനുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു അപ്പോൾ സാറ് പെട്ടെന്ന് വന്ന് റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് നമുക്ക് നേരത്തെ ക്ലീൻ ചെയ്ത് ഇടാനായിട്ട് പറ്റിയില്ല അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഓടി വന്ന് തിരക്കിട്ട് ക്ലീൻ ചെയ്ത് തീർത്തതാണ് ആ അങ്ങനെ സംഭവിച്ച് പോയതാണ് അതിൽ ക്ഷമ ചോദിക്കുന്നു നമ്മുടെ ബാക്കി സറൗണ്ടിംഗ് അറ്റ്മോസ്ഫിയറ് സ്വിമ്മിംഗ് പൂളും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടായിരുന്നു സാറേ നമ്മുടെ ടാക്സി സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു സാറിന് അവിടെ അടുത്തുള്ള ടൂറിസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ പോവാൻ വേണ്ടി നമ്മൾ ടാക്സിയൊക്കെ അറേഞ്ച് ചെയ്തിരുന്നല്ലോ അപ്പോൾ ആ സർവീസും ഡ്രൈവറുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ സാറിന് രാവിലത്തെയും ഉച്ചക്കത്തെയും വൈകീട്ടത്തെയും ഓക്കെ ഫുഡും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ അതെ സാറേ നമുക്ക് സീ ഫുഡിൻ്റെ ആ നമ്മുടെ സീ ഫുഡിന് വന്നേക്കുന്നൊരു പുതിയ ഷെഫ് ആണ് അപ്പോൾ പുള്ളി വേറൊരു മെയിൻ ഷെഫ് ലീവാ അപ്പോൾ പുള്ളി അത് പഠിച്ച് വരുന്നുള്ളൂ അതിൻ്റെ ഒരു ചെറിയൊരു കുഴപ്പം ഉള്ളൂ ബാക്കി നമ്മൾ ബാക്കി ഫുഡ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സീ ഫുഡ് അല്ലാണ്ട് ആ അപ്പം സാറേ സാറിനൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു തോന്നുന്നു ഇനി വരുമ്പോൾ ഓ തീർച്ചയായിട്ടും നമ്മുടെ ഹോട്ടലിലേക്ക് വരില്ലേ സാറേ ഓക്കേ സാർ താങ്ക് യൂ